എൻ്റെ പ്രദേശം എന്ന് പറയുന്നത് ഇടുക്കിയാണ് ഇടുക്കിയിനെ സംബന്ധിച്ചു പറയുകയാണെങ്കിൽ വളരെ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങൾ ഒട്ടേറെയുണ്ട് എന്നിരുന്നാലും അവയിൽ ഏറ്റവും പ്രധാനമേറിയത് ഇടുക്കി ആർച്ച് ഡാമാണ് ബ്രിട്ടീഷ് ഭരണകാലത്തുതന്നെ പണി കഴിപ്പിച്ച ഈ ഡാം ഇന്നും ഇന്നും യാതൊരുവിധ കുഴപ്പങ്ങളുമില്ലാതെ നിലനിൽക്കുന്നു ഇടുക്കി ഡാമിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലേക്ക് അല്ലെങ്കിൽ എന്താ ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്കു ജലം ലഭ്യമാക്കുന്നതിലും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നതിലും വളരെ വളരെ വളരെ വലിയൊരു പങ്കാണ് ഇടുക്കി ആർച്ച് ഡാം വഹിക്കുന്നത് ഇടുക്കിയിനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ഇടുക്കി എന്നു പറയുന്നത് ഒരു മലനാടാണ് ധാരാളം കാടുകളും സസ്യ ജന്തുജാലങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഒരു എന്താണ് ഒരു ഒരു നല്ലൊരു ജില്ലയാണ് ആ ജില്ലേനെ സംബന്ധിച്ചിടത്തോളം അവയിലേക്ക് അവയിലേക്ക് അവയിലേക്കു ജലം എത്തിക്കുക എന്നുള്ളതു വളരെ പ്രധാനമേറിയൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി എന്നു പറയുമ്പോള് വളരെ നല്ല വായുവും അതുപോലെ തന്നെ എന്താ നല്ല മണ്ണും നല്ല കാലാവസ്ഥയും എല്ലാം ഒത്തു ചേർന്നൊരു നല്ലൊരു ഭൂപ്രകൃതി നൽകുന്നതാണ് ഇടുക്കിയെന്നു പറയുന്നത് ഇടുക്കിയില് സവിശേഷമായ ഒട്ടേറെ സ്ഥലങ്ങളുണ്ട് പൈൻ ഫോറസ്റ്റ് കുക്കാട് നമ്മുടെ എന്താ അങ്ങനെ ഒത്തിരി അനവധിയുണ്ട് എന്നിരുന്നാലും ഇടുക്കി ആർച്ച് ഡാമാണ് കാരണം കേരളത്തിലെ ഏക ആർച്ച് ഡാമാണ് ഇടുക്കി ആർച്ച് ഡാം ഇന്നും ഒരു കുഴപ്പങ്ങളുമില്ലാതെ ഇടുക്കി ഡാം നിലനിൽക്കുന്നു മുല്ലപ്പരിയാറിനോട് ചേർന്ന് നിലനിൽക്കുന്ന ഒന്നാണ് ഇടുക്കി ആര്ച്ച് ഡാം ഇടുക്കയിലെ സവിശേഷമായ പ്രദേശങ്ങളിലുപരിയായിട്ട് ഭാവിയിലെങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതിലാണ് കാര്യം കാരണം ബ്രിട്ടീഷ് ഭരണകാലത്ത് പണി കഴിപ്പിച്ച ഈ ഒരു ഡാം ഇന്നും ഒരു കുഴപ്പമില്ലാതെ നില്ക്കണമെങ്കിൽ അതിനുള്ള റീസണെന്നു പറയുന്നത് അക്കാലത്തെ ആൾക്കാരുടെ ഒരു എന്താണ് സംയോജിതമായ ഇടപെടലും അതുപോലെ തന്നെ അവയെക്കൊണ്ടുള്ള അവകൊണ്ടുള്ള ജനങ്ങൾക്കുള്ള ഒരു ഉപകാരവും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഒരു ആവിർഭാവത്തിൻ്റെ ഭാഗമായാണ് ഇതിൻ്റെ ഇത് ഇന്നും നിലനിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിലെ സവിശേഷമായ ഭൂപ്രകൃതി തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ഒത്തുചേരലിൻ്റേയും കൂട്ടായ്മയുടെയും ഭാഗമായിട്ടാണ് കാരണം ഇവിടെയധികം ഇവിടെയധികം വായുമലിനീകരണം ജലമലിനീകരണം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇവിടുത്തെ ആൾക്കാരുടെ ഒരു സംയോജിതമായ ഒരു ഇടപെടലാണ് ഇതിനെയെല്ലാം ഉറ്റുനോക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം അവയെ സംരക്ഷിക്കുന്നതും ഇടുക്കി ആർച്ച് ഡാം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ധാരാളം ഒട്ടനവധി ആൾക്കാരുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് അവരെ വച്ചുനോക്കുകയാണെങ്കിൽ ഇടുക്കി ഡാം എന്നു പറയുന്നത് ഒരു സവിശേഷമായൊരു വരദാനമാണ് ജലമെന്നു പറയുന്നത് നമുക്കറിയാം നമുക്ക് നമുക്കെല്ലാവർക്കും വളരെയധികം വേണ്ടൊരു അവിഭാജ്യ ഘടകമാണ് ജലമെന്നു പറയുന്നത് ജലമപ്പോള് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക എന്നതിനുപരിയായിട്ട് അത് എങ്ങനെ നമ്മളത് ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം അപ്പോള് അതിനുവേണ്ടി നമ്മള് പല പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് ജലമിപ്പോള് തമിഴ്നാടിനറിയാം നമുക്കെല്ലാവർക്കുമറിയാവുന്നതുപോലെതന്നെ തമിഴ്നാടിനും വെള്ളം കുറവാണ് അല്ലെങ്കില് ജലത്തിൻ്റെ ജലത്തിൻ്റെ അപര്യാപ്തതയുണ്ട് എന്നിരുന്നാലും ഇടുക്കിയാണ് അതു സംയോജിതമായി മുന്നോട്ടിറങ്ങി തമിഴ്നാടിന് തമിഴ്നാടിന് ജലം ലഭ്യമാക്കുന്നത് കൊലുമ്പനാണ് കൊലുമ്പനെന്നു പറയുന്നത് വളരെ സവിശേഷ പ്രധാനമുള്ളൊരു വ്യക്തിയാണ് ഇടുക്കി ആർച്ച് ഡാം നിർമ്മാണത്തിൽ വളരെയേറെ പങ്ക് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അയാൾക്ക് പറ്റുന്നത്ര സംഭാവനകൾ നൽകിയൊരു വ്യക്തിയാണ് ചരിത്ര പ്രധാനമായ പുരോഗതികളിലൂടെ അധികം വളരെ വളരെ നന്നായി തന്നെ പ്രവർത്തിച്ചുവരുന്നു ഇടുക്കീനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ജില്ലയാണ് ഇടുക്കി എൻ്റെ പ്രദേശമെന്നു പറയുന്നത് കാഞ്ചിയാർ എന്ന് പറയുമ്പോള് ഇടുക്കിയിലെ ഇടുക്കിയിലൊരു വളരെ പ്രസിദ്ധമായൊരു സ്ഥലമാണ് കാഞ്ചിയാർ കട്ടപ്പന സൈഡ് അപ്പോള് കട്ടപ്പനയിലെ സവിശേഷമായൊരു കാലാവസ്ഥയുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ളൊരു ഭൂപ്രകൃതിയുടെയൊക്കെ ഫലമായിട്ടാണ് ഇന്നെല്ലാവരും നമ്മൾ ഇന്ന് ഈ ഒരു നിമിഷത്തില് പോലും നമ്മളെല്ലാവരും നന്നായി കഴിയുന്നതിനും അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരു എന്താണ് സംയോജിതമായൊരു ഇടപടലിൻ്റേയും ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇന്നും ജീവിച്ചു പോകുന്നത് അപ്പോള് ഇതിനെ സംബന്ധിച്ച് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ താങ്ക്യു